പാചകം ചെയ്യാന് എനിക്കെന്നും നാടന് രീതിയിലുള്ള പാചകാ ക്രമമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ നാടന് രീതിയെന്നു പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്താ പൊടിച്ച മുളകു പൊടി അല്ലെങ്കില് പൊടിച്ച മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത് പുറത്തൂ നിന്നുള്ള ഒരുപാട് എസെന്സുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ രീതിയിലുണ്ടാക്കുന്ന ഭഷ്ണത്തിന്റെ പാചകക്രമം തന്നെയാണ് നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാംതന്നെ നല്ലതും അത്തരം രീതിയിലുള്ള പാചകക്രമങ്ങള് തന്നെയാണ് എന്നും ഇഷ്ടപ്പെടുന്നതും അത്തരം ഭക്ഷ്ണ രീതികൾ തന്നെയാണ് നമുക്ക് പുറത്തു നിന്നു ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അതിനു രുചികൾ നമുക്ക് നന്നായി ലഭിക്കുന്നുണ്ടെങ്കില് പോലും അതിലൊരുപാട് കൃത്രിമ രീതിയിലുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവയ്ക്കൊക്കെ അത്രയും നിറം ഭക്ഷ്ണം രുചി കൂടണത് എന്നാല് അതിന് അത്രത്തോളം തന്നെ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കളാണേനും അപ്പോൾ അതു കൊണ്ടു തന്നെ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിനും ക നല്ലതായിട്ടുള്ളത് നാടന്ഭക്ഷ്ണ രീതി ഒക്കെ തന്നെയാണ്